പണ്ടത്തെ കാലത്തൊന്നും സ്ത്രീകൾ അധികമായി കായിക ഇനങ്ങളിൽ ഏർപ്പെടാറില്ലായിരുന്നു അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ടായിരുന്നു സ്ത്രീകളെ വീട്ടിൽ നിന്നും ഇതിനൊന്നും അനുവദിച്ചിരുന്നില്ല സ്ത്രീകൾക്ക് ഇതിനൊന്നും ഉള്ള അധികാരവും അവകാശവും ഉണ്ടായിരുന്നില്ല ഇ ഇത്തരത്തിൽ കായിക ഇനങ്ങളിൽ ഏർപ്പെടാനൊന്നുമുള്ള അനുവാദം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നില്ല ആദ്യ കാലങ്ങളിൽ എന്നു വെച്ചാൽ സ്ത്രീകൾ വീടുകളിൽ തളച്ചിട്ടിട്ടാണുണ്ടായിരുന്നത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് വീട്ട് ജോലി ചെയ്യാൻ മാത്രമാണ് അവരെ പുറത്ത് പോയി ജോലിചെയ്യാനോ ഇത്തരത്തിൽ കായിക ഇനങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒന്നും അനുവദിച്ചിരുന്നില്ല എന്നാൽ ഈ ഇടയായിട്ട് ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുകയും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തിനും ദേശത്തിനും പോലും അഭിമാനമായി സ്ത്രീകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെക്കാലത്ത് സ്ത്രീകൾ ഒരുപാട് കായിക ഇനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അതുപോലെ കായിക ഇനങ്ങളിലൂടെ അവർ ലോകത്തിൽ പ്രശസ്തി നേടുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട് പി വി സിന്ധു മേരി കോം സാനിയ മിർസ സാക്ഷി മാലിക് സൈന നെഹ്വാൾ മിതാലി രാജ് കർണ്ണം മല്ലേശ്വരി ഹിമാ ദാസ് ദീപിക കുമാരി പി ടി ഉഷ അശ്വനി നാച്ചപ്പ റീത് അബ്രഹാം അഞ്ചു ചോപ്ര കവിത ചഹൽ ദിവ്യ സിങ് കുഞ്ഞുറാണി ദേവി ഗീത സുട്ഷി കുമൽജിത്ത് സന്ധു ആശ അഗർവാൾ റാസിയ ഷേക്ക് പ്രശാന്തി സിങ് അശ്വനി നാച്ചപ്പ ബുല ചൗധരി രാഹി സർണോബട്ട് ശിഖ ടണ്ടൻ ഷൈനി അബ്രഹാം ജ്യോതിർമയി സിക്ദർ സ്റ്റെഫി ഡിസൂസ സീമ പുണ്യ കെ എം ബീനമോൾ സോമ ബിശ്വാസ് നീലം ജസ്വന്ത് സിങ് അപൂർവി ചന്ദേല ജ്വാല ഗുട്ട റാണി റമ്പൽ ജോഷ്ന ചിന്നപ്പ എം ഡി വത്സമ്മ മേരി ഡിസൂസ അശ്വനി പൊന്നപ്പ കൃഷ്ണ പൂനിയ അപർണ്ണ പോപ്പട്ട് കവിത തുങ്കർ ഇതെല്ലം ഇന്ത്യയിൽ ഫേമ ഫേമസ്സായിട്ടുള്ള സ്ത്രീ കായിക താരങ്ങളാണ് ഇതുപോലെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ കായിക താരങ്ങളായിട്ടുണ്ട് അവരാണ് സാനിയ മിർസാ സെറീന വില്യംസ് റോണ്ട റോസി ഡാനിക പാട്രിക് ലിൻസി വോൺ മില്ലി ജിൻകിൻസ് സൈമൺ ബിൽസ് ഗീത ഫോഗട്ട് മരിയ ഷറപ്പോവ വില്മ റുഡോൾഫ് അലക്സ് മോർഗൻ ദീപാ കർമ്മകർ ഫ്ലോറൻസ് ഗ്രഫിത്ത് ഇവരെല്ലാം പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് കായിക അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിലൊന്നും സ്ത്രീകളെ കായിക ഇനങ്ങളിൽ ഏർപ്പെടാൻ പോലും ആരും അനുവദിച്ചിരുന്നില്ല പക്ഷെ ഇന്നങ്ങനെ അല്ല സ്ത്രീകൾക്ക് വേണ്ടി അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളുകളിൽ പോലും ഫുട് ബോൾ ടീമുകൾ ബാസ്കറ്റ് ബോൾ ടീമുകൾ വോളി ബോൾ ടീമുകൾ ക്രിക്കറ്റ് ടീമുകൾ ഇത്തരത്തിൽ കായിക ഇനങ്ങൾ ഇതിൽ സ്ത്രീകളെ ഏർപ്പെടുത്താനും അവർക്ക് വിജയം നേടിക്കൊടുക്കാനും മാതാപിതാക്കളും കുടുംബങ്ങളും സ്കൂളുകളും ഇന്ന് ഏറെ പരിശ്രമിക്കുന്നുണ്ട് ആൺകുട്ടികളെപോലെ തന്നെ സ്ത്രീകളെയും പെൺകുട്ടികളെയും കായിക ഇനങ്ങളിൽ ഏർപ്പെടുത്തി നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കൂടുതലായി അതിൽ ഏർപ്പെടാനും അതിന് വേണ്ടി പരിശ്രമിക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിലൂടെ ഒരുപാട് സ്ത്രീ കായിക താരങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ദിനം പ്രതി സ്ത്രീകൾക്കുള്ള കായികാവസരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വർത്തകളെടുത്തു നോക്കിയാൽ നമുക്ക് തന്നെ കാണാൻ കഴിയും സ്ത്രീകൾ ക്രിക്കറ്റിൽ നേടുന്ന നേട്ടങ്ങളും ഫുട് ബോളിൽ നേടുന്ന നേട്ടങ്ങളും അതുപോലെ വോളി ബോൾ ബാസ്കറ്റ് ബോൾ ഇവയിലെല്ലാം സ്ത്രീകളിന്ന് മുന്നേറി കൊണ്ടിരിക്കുകയാണ് അത്ലറ്റിക് മീറ്റുകളിലും ഒളിമ്പിക് മീറ്റുകളിലുമെല്ലാം സ്ത്രീകൾ ഒരുപാട് നേട്ടങ്ങൾ സ്വർണ്ണ മെഡൽ ബ്രോൻസി മെഡൽ എല്ലാം നേടിയിട്ടുള്ള വാർത്തകൾ നമ്മൾ ദിനം പ്രതി കാണാറുണ്ട് ഇതിൽ നിന്നെല്ലാം സ്ത്രീകളുടെ കായിക വളർച്ചയാണ് നമുക്ക് മനസ്സിലാകുന്നത്